പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് ഇഷ്ടവാണ് പുസ്തകങ്ങൾ എന്നാൽ നല്ല കഥകൾ കഥകളൊടൊക്കെ ഭയങ്കര ഇഷ്ടവാണ് അത് നല്ല കഥകളൊക്കെ കിട്ടിയാൽ വായിക്കാറുണ്ട് പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പം ലൈബ്രറിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുവായിരുന്നു ചെറിയ ചെറിയ പുസ്തകങ്ങൾ ചെറിയ രീതിയിലൊക്കെ വായിക്കുവായിരുന്നു കഥകളൊക്കെ കവിത എന്ന് പറഞ്ഞാൽ അങ്ങനെ കവിതയോട് അത്ര വലിയ താല്പര്യം എന്നാലും ഇഷ്ടപ്പെട്ട കുറച്ച് കവിതകളുണ്ട് കവികളും ഉണ്ട് പിന്നെ പുസ്തകം എന്നു പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈബ്രറിന്നൊക്കെ എടുക്കുവായിരുന്നു ഇപ്പം സ്കൂളിലൊന്നും പഠിക്കാത്തൊണ്ട് അതൊന്നും അറിയില്ല പിന്നെ മക്കളൊക്കെ എടുത്തോണ്ട് വരുമ്പം ഞാൻ നോക്കാറുണ്ട് വായിക്കാറുണ്ട് അതിന് സെൻ്റ് ജോസഫ് ബുക്ക്സ്റ്റാളിന്നൊക്കെ പുസ്തകങ്ങളൊക്കെ എടുക്കാറുണ്ട് പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിവ് പകർന്ന് തരുന്നൊരു കാര്യമാണല്ലോ വായനയിലൂടെയാണ് അറിവുകൾ കൂടുതൽ കിട്ടുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം അല്ല അത് അങ്ങനെത്തന്നെയാണ് മറ്റുള്ളവർ പറയുന്നതിലും മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്നൊക്കെ നല്ലത് നമ്മളിങ്ങനെ അറിവ് നേടാനായിട്ട് നമുക്ക് പുസ്തകങ്ങൾ പുസ്തകങ്ങളെ ആശ്രയിക്കുന്നത് തന്നെയാണ് നല്ലത് കഥകളാണെലും കവിതകളാണെലും മാധ്യമം ചെറുകഥകളാണേങ്കിലും അങ്ങനെ പല രീതിയിലുമുണ്ടല്ലോ നോവലുകളായാലും ചെറുകഥകളയാലും ഹൊറർ അങ്ങനെ ഒത്തിരി പുസ്തകങ്ങൾ ഉണ്ട് അതിലൊക്കെ എനിക്ക് ഇഷ്ടം നോവലുകളൊ കഥകളോ ഒക്കെ വായിക്കുന്നതാണ് പിന്നെ സസ്പെൻസ് ത്രില്ലറിനോടൊക്കെ ഇഷ്ടവാണ് അങ്ങനെ വായിക്കാനായിട്ട് പിന്നെ പുസ്തകം നല്ല ഒരു കാര്യമാണ് എനിക്ക് ഇപ്പം വളർന്നു വരുന്ന തലമുറക്ക് ഒന്നും അതൊന്നും അതിനോടൊന്നും താൽപര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും വായിക്കുന്നവരുണ്ട് ഒത്തിരിപേരുണ്ട് പണ്ടൊക്കെന്ന് പറയുമ്പം ലൈബ്രറികളിൽ നിന്നൊക്കെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുവായിരുന്നു ഇപ്പം മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം വന്നതോടുകൂടി അതിപ്പം അന്ന്യം നിന്ന് പോയത് പോലെയാണ് പുസ്തകം ഇപ്പം ആർക്കും അതിനൊന്നും നേരമില്ലായിരുന്നു വായിക്കാനോ ഒന്നും നേരമില്ലാതായിരിക്കയാണ് മൊബൈലിനകത്താണ് ഇപ്പോൾ എല്ലാം മൊബൈലിനകത്ത് ഉണ്ട് കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ പുസ്തകത്തിലൂടെ കിട്ടുന്നത്ര ഒരു ഇത് ആയിരിക്കത്തില്ലല്ലോ ഞാൻ പണ്ടൊക്കെ എൻ്റെ ബ്രദറ് ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ എടുത്തോണ്ട് വരുവായിരുന്നു ഈ ഉള്ളൂർ സ്മാരക ലൈബ്രറിന്നൊക്കെ എൻ്റെ ബ്രദറിനും പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ട്ടവാണ് അപ്പം അതൊക്കെ ഞാനക്കെ ചുമ്മ ഇങ്ങനെ നോക്കുവായിരുന്നു ഇഷ്ടപ്പെട്ടതൊക്കെ വായിക്കേം ചെയ്യുവായിരുന്നു ഇപ്പം കുറെയായി എന്തെങ്കിലും ഒക്കെ വായിച്ചിട്ട് പുസ്തകങ്ങൾ എനിക്ക് ഇഷ്ടവാണ് അങ്ങനെ കുറച്ച് കൽ കട ഇപ്പം ഞങ്ങളിപ്പോൾ പുസ്തകങ്ങളൊക്കെ നമ്മുടെ സെൻറ് ജോസഫ് അങ്ങനനൊക്കെയുള്ള സ്ഥലങ്ങളിന്നൊക്കെയാണ് എടുക്കാറും വായിക്കാറും ഒക്കെ ഉള്ളത് അങ്ങനെ വലിയ കളക്ഷൻ ആയിട്ട് ഒന്നും ഇല്ല കിട്ടുമ്പം വായിക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ പുസ്തകം കളക്ഷനുകൾ ഒന്നും ഇല്ല എനിക്ക് പുസ്തകങ്ങൾ നമുക്ക് അറിവ് നേടാനായിട്ടൊക്കെ ഏറ്റോം നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള തലമുറയോട് എനിക്ക് അതൊക്കെയാണ് പറയാൻ ഉള്ളത് പുസ്തകങ്ങൾ വായനയിലൂടെ നമ്മുടെ ചിന്താശക്തി ഭാവനശേഷി ഒക്കെ വർദ്ധിക്കത്തുള്ളൂ അതുകൊണ്ട് വായിക്കുന്നത് ഏറ്റോം നല്ല കാര്യമാണ് വായനയാണ് ഏറ്റോം നല്ല കാര്യം അത് വളർത്തിയെടുക്കാന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലകൂടിയാണ്